ഞങ്ങളുടെ സ്ഥലത്ത് ബിസിനസ്സ് നടത്താനായിട്ടുള്ള പ്രകൃതി വിഭവങ്ങളെന്നു പറഞ്ഞാല് കപ്പയും കാച്ചില് ചേന തക്കാളി പിന്നെന്തുവാ പച്ചപ്പയര് പിന്നാ ഇങ്ങനത്തെ ഐറ്റങ്ങള് പിന്നേ കോവല് വെണ്ട ഇതെല്ലാം പിന്നേ വിഷരഹിതമായിട്ടുള്ള സംഗതികള് ഈ പ്രകൃതി വിഭവങ്ങള് നമ്മുടെ നമ്മള്ക്ക് സ്വന്തമായിട്ടെടുക്കാനായിട്ട് നമ്മടെ സാ സ്ഥലത്ത് കൃഷിയോഗ്യമാക്കി എല്ലാമാക്കിവെച്ചിട്ടുണ്ട് അത് നമ്മുടേതായിട്ട് നമ്മള്ക്ക് തന്നെതായിട്ടുള്ള കടകളുണ്ട് ആ കടകളിൽ കൊണ്ടു കൊടുക്കുകയും അന്നേ അത് നമ്മള്ക്ക് പ്രയോജനമാകുന്ന രീതിയില് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യ പിന്നേ പിന്നെന്തുവാ നമ്മള് അതിനേ ഫലം ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ആവശ്യമായതിന് അതിൻ്റെ സമയം അതാത് സമയങ്ങളില് അതിന് വളമിട്ട് കൊടുക്കുകയും അതിനേ പരിരക്ഷിക്കുകയും ചെയ്യുക പരിരക്ഷിക്കുകയും ചെയ്യുന്നതനുസരിച്ച് അത് നമ്മള്ക്ക് കൂടുതൽ കൂടുതൽ ഫലം ആക്കി തരുകയും തരും ഫലമാക്കി തരുന്നതനുസരിച്ച് നമ്മൾക്ക് അതിൽനിന്നും ലാഭങ്ങളും എടുക്കാൻ കഴിയുന്നു നമ്മളിപ്പോള് ഒരൂ കപ്പ നട്ടാല് അതിൻ്റെ നമുക്ക് ചെലവാകുന്നതിൻറ്റെ കൂടുതല് കാര്യങ്ങള് നമുക്ക് അതിൽനിന്നും നമുക്ക് കിട്ടും സാമ്പത്തികമായിട്ട് നമ്മള്ക്കിപ്പോള് അഞ്ചുരൂപവെച്ച് മുതൽ മുടക്കുണ്ടെങ്കില് അത് പത്ത് രൂപ കിട്ടത്തക്കരീതിയില് നമ്മക്കതിനെ ഫലമാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മള്ക്കതിന് അതിന് ഉതകുന്നതായിട്ടുള്ള വളങ്ങളുമൊക്കെ ഇട്ടുകൊടുത്ത് കഴിയുമ്പോള് അതിന് കൂടുതലായിട്ടുള്ള ആ ഫലങ്ങൾ അതിൽനിന്ന് നമുക്ക് ശേഖരിച്ച് കിട്ടുവാനായിട്ട് സാധിക്കും ഇപ്പോള് നമ്മള്ക്ക് നമ്മളുപയോഗിച്ച് കഴിഞ്ഞ് നമ്മള്ക്ക് നമ്മുടെ കടകളിലും നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിച്ചുകഴിഞ്ഞ് നമ്മള്ക്ക് ബാക്കി വരുന്നതായ പ്ര വിഭവങ്ങള് നമ്മുക്ക് മറ്റുള്ള കടകളിൽ കൊടുക്കാനും അതിലൂടെ നമ്മള്ക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കാനും സാധിക്കും അതുകൊണ്ട് അന്നേ നമ്മുടെ വീട്ടിൽത്തന്നെ ഇതെല്ലാം വാസയോഗ്യമാക്കുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക എന്ന് പരിശ്രമിക്കുക